ആതെ ഇതാരാണ് ആണോ എ എന്താവശ്യം

നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം എന്നുള്ളതൊക്കെയൊന്ന് പറയാൻ പറ്റുവോ എങ്ങനെയാണ് എത്രയാ വേണ്ടതെന്നൊക്കെ ആണോ ആ ഞാന് ഓക്ക് ഞാനെ ഒക്കെയാണിതില് പക്ഷേ പേ ഇത് പൈസയൊക്കെ എങ്ങനെയാണ് തരുന്നത് ഞാനൊരു പാക്കറ്റും ആ നിങ്ങൾക്ക് ആ എ ഞാനെ ഒരു പാക്കറ്റിൻ്റെ ഞാൻ മുന്നൂറ് റുപ്പിയാ കൊടുക്കുന്നത് ആ അതെ അതെ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഉപകാരം ഞാൻ വേണമെങ്കിൽ അയച്ച് തരാം പക്ഷേ പൈസ എനിക്ക് ക്യാഷായിട്ട് തന്നെ വേണം എൻ്റെ കൈയ്യിലേക്ക് തന്നെ കിട്ടണം ആ വാ അതെ അതെ അതെ ആ നിങ്ങള് എപ്പമാണെന്ന് വച്ചാൽ നിങ്ങള് വന്ന് മേടിച്ചോ ആ ശരി ശരി